സ്കൂൾ ബാഗ് സ്കൂൾ ബാഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ജൂൺ ജൂലായ് മാസത്തിൽ ഏറ്റവും കൂടുതൽ കേട്ടോണ്ട് ഇരിക്കുന്ന ഒരു വാക്കാണ് സ്കൂൾ ബാഗ് മക്കൾ എല്ലാവരും കൂടെ വാശി പിടിക്കുകയാണ് എനിക്ക് സ്കൂൾ ബാഗ് വാങ്ങിത്താ സ്കൂൾ തുറക്കാൻ ആയിസമയം ആയി വേഗം വാങ്ങിത്താ പറഞ്ഞിട്ട് നമ്മളൊരു ജൂൺ മാസം സ്കൂൾ തുറക്കുന്ന സമയം ആകുമ്പോഴേക്കും വാങ്ങിക്കും എന്താ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് അവരുടെ പുസ്തകങ്ങൾ ഒക്കെ നല്ല വൃത്തിയിൽ നല്ല സേഫ് ആയിട്ട് നനയാൻ പറ്റാണ്ട് വെക്കാൻ പറ്റുന്നത് ബാഗിലാണ് അതുപോലെ അത് സേഫ് ആണ് അവരുടെ ബുക്കുകൾ നനയുന്നില്ല സ്കൂളിൽ പോയിട്ട് ബാഗിന്നു സിബ് തുറന്ന ബാഗിന്നു ബുക്ക് എടുത്ത് നല്ല ഉണങ്ങിയ ബുക്ക് എടുത്ത് പഠിക്കാം ബാഗോന്നും ഇല്ലെങ്കിൽ നനഞ്ഞു ബുക്ക് ഒക്കെ എടുത്തിട്ട് വേണ്ടേ പടിക്കാൻ മക്കൾ മാത്രമല്ല അവരുടെ ടിഫ്ഫൻ വെക്കാനും കുട വെക്കാനും ബാക്കി പുസ്തകങ്ങൾ വെക്കാനും ഒക്കെ പറ്റും അങ്ങിനെ നല്ല സേഫ് ആയിട്ടുള്ള ഒരെണ്ണം ആണ് സ്കൂൾ ബാഗ് മാത്രമല്ല അത്യാവശ്യം വീട്ടിൽ ഉള്ള മൂതിർന്നവർക്കും എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ആ ബാഗ് എടുത്തു കൊണ്ടുപോകാം അല്ലറ ചില്ലറ സാധനങ്ങൾ ഒക്കെ എടുത്തിട്ട് അവർക്കത് ഉപയോഗിക്കാം ബാഗിലിട്ടിട്ട് രണ്ട് ദിവസത്തേക്ക് ഒക്കെ തങ്ങാൻ വേണ്ടി പോകുമ്പോൾ മാത്രമല്ല ഇപ്പോ പല സൈസിൽ പല കളറിലൊക്കെ ഇപ്പോ അവൈലബിൾ ആണ് ബാഗ് എന്ന് വെച്ചാല് അതായത് പലതരം കമ്പനി ഉണ്ട് നല്ല നല്ല ബാഗുകൾ നല്ല ക്വാളിറ്റി ഉള്ളത് പല നല്ല ഡിസൈൻ ഉള്ളതൊക്കെ അവൈലബിൾ ആണ്